ഇവിടെ സർക്കാർ പ്രാഥമിക ആശുപത്രി പ്രാഥമിക കുടുംബാരോഗ്യമുണ്ടിവിടെ വീടിൻ്റെവിടുന്ന് ഒരു കിലോമീറ്ററ് ഡിസ്റ്റൻസില് ഒരു പെട്ടന്നൊരു അത്യാവശ്യം ഉണ്ടെങ്കിൽ പോയേച്ച് അതേ അസുഖം നോക്കാൻ ആളുണ്ട് അതുകഴിഞ്ഞൊര് രണ്ട് രണ്ട് കിലോമീറ്ററ് ഒരു മൂന്ന് കിലോമീറ്ററ് ചുറ്റളവിൽ തന്നെ ഒരു പ്രാഥമിക ഹെൽത്ത് സെൻ്ററുണ്ട് അവിടെ നമുക്ക് എളുപ്പത്തിലെത്താവുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് പിന്നെ ജില്ലാ ആശുപത്രി ഇപ്പം ഗവൺമെന്റ് ഹോസ്പിറ്റൽ ലിസി ഹോസ്പിറ്റൽ പന്ത്രണ്ട് കിലോമീറ്ററാണ് ഇവിടുന്നുള്ളത് പിന്നെ ഒരു ആറ് ഏഴു കിലോമീറ്ററ് പോയച്ച വേറെ ബ്ലോക്ക് ബ്ലോക്ക് ആശുപത്രി അല്ലാണ്ടപ്പോൾ എല്ലാ സർക്കാർ ആശുപത്രികളിലും വളരെ അടുത്തായിട്ട് തന്നെയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പോകാനൊക്കെ വളരെ എളുപ്പം തന്നെയാണ് സർക്കാർ ആശുപത്രികള് പോരാഞ്ഞിട്ട് പ്രൈവറ്റ് ആശുപത്രികളും ആശുപത്രിയെല്ലാം ഡോക്ടേഴ്സ് എല്ലാവരും ഉണ്ട് അതുകൊണ്ടിപ്പോൾ ഇവിടെ അസുഖം വന്ന് കഴിഞ്ഞാച്ചാൽ പെട്ടന്ന് ഒരാളെ ഡോക്ടറുടെ അടുത്ത് എത്തിക്കാന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണിവിടെ